ഞങ്ങളുടെ സമീപത്തുള്ള ഒരു പ്രധാന വിനോദ സഞ്ചാരകേന്ദ്രം ആണ് കേരളാ കുട്ടനാട് മ്യൂസിയം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട് അതാണ് ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അതിൽ കുറേ ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളോട് ഇപ്പോൾ ആരെങ്കിലും സജഷൻസ് ചോദിക്കുവാണെങ്കിലും ഞങ്ങൾ അവിടെയാണ് റെക്കമൻഡ് ചെയ്യുന്നത് അവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട് പ്രദർശനത്തിന് നമ്മുടെ കുട്ടനാടൻ തനതായ എല്ലാം പണ്ടുതൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കിച്ചണിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആണെങ്കിലും എന്തൊക്കെയാണ് കുട്ടനാടിൻറെ അതായത് പല പല കൾച്ചേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു പോസ്റ്റർ പോലെയല്ല വിത്ത് പിക്ച്ചർ അവിടെ എംബെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ ക അല്ലാതെ വസ്തുക്കളും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഭയങ്കര ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അവിടെ ഏകദേശം അമ്പത് രൂപ മാത്രമേ ഉള്ളൂ അവിടെ ആ കയറാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന വണ്ടിക്കൂലിയുടെ ഒരു ചിലവും മാത്രമേ ഉള്ളൂ